നമ്മുടെ ജീവിതത്തിൽ കളികൾക്ക് വളരെയധികം പ്രധാന്യമുണ്ട് കാരണം വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മുടെ കുട്ടികള് അതിലൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് മാനസിക ഉല്ലാസമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തീർച്ചയായിട്ടും വേണം അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകള് അവർക്കും ഈ പറയുന്ന രീതിയിലേക്ക് സമയം കുറച്ച് നല്ല രീതിയിലേക്ക് വിനിയോഗിക്കണം കാരണം കുറച്ച് റസ്റ്റ് ആ റസ്റ്റെന്ന് പറഞ്ഞാല് ഇതുപോലെയുള്ള കളികളിലൂടെയൊക്കെ ആകുമ്പോള് അവർക്ക് കുറേ കാര്യങ്ങള് ന നല്ല രീതിയില് മനസ്സിലാക്കി എട് എടുക്കാൻ സാധിക്കും കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ റുബിക്സ് ക്യൂബുകളുണ്ട് അതുപോലെ തന്നെ ബ്ലോക്കുകളൊക്കെ വച്ചുകൊണ്ടവര് പുതിയ പുതിയ കാര്യങ്ങള് പഠിച്ചെടുക്കാനായിട്ടത് തീർച്ചയായിട്ടും സാധിക്കും അതൊരു കളികളുടെ രൂപത്തിലാകുമ്പോഴത്തേക്കവർക്ക് വളരെയധികം താൽപ്പര്യം ആ ഒരു രൂപത്തിലേക്ക് വരും അപ്പോള് അങ്ങനെ കൊച്ച് ചെറുപ്പം മുതലേ എന്തെങ്കിലും കളികളിലൊക്കേയിട്ടവരെ ബന്ധപ്പെടുത്തി പോകുകയാണെന്നുണ്ടെങ്കിലവരുടെ പഠനത്തിലവര് തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള ഒരു താൽപ്പര്യമുണ്ടാവും അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് കൊടുക്കാവുന്ന കളികളാണ് ചെസ്സ് കളികൾ ചെസ്സ് അതുപോലെയുള്ള കളികളൊക്കെ കാരണം അതിലൂടെ അവർക്ക് മാനസികമായിട്ടും ക്കെ കുറച്ച് കൂടെ ഷാർപ്പ്നെസ്സ് ഷാർപ്പ്നെസ്സ് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ആ ഒരു രൂപത്തിലേക്ക് കുട്ടികൾ വളർന്ന് വളർന്ന് വരുകയാണെന്നുണ്ടെങ്കില് അവർക്ക് എന്തു കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ളൊരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും ലഭിക്കും അപ്പോള് പിന്നെ ജോലിയോടൊപ്പം അല്ലെങ്കിൽ പഠനത്തോടൊപ്പം ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്ന കളികളെന്ന് പറയുന്നത് അത് നല്ല കളികള് തെരഞ്ഞെടുക്കാൻ ഇനിയും ഏത് കളികളാണെങ്കിലും അത് പിന്നെ ശാരീരിക ക്ഷമത വർദ്ധിക്കും ശാരീരിക ക്ഷമത വർദ്ധിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് പ്രവർത്തിക്കുകയുള്ളു എന്നു പറഞ്ഞതു പോലെ തീർച്ചയായിട്ടും പിന്നെ ഏതു കളികളാണങ്കിലും അവനത് പ്രയോജനമാണ് കാരണം ഫുട് ബോളാണങ്കിലും ക്രിക്കറ്റാണങ്കിലും വോളി ബോളാണങ്കിലും അല്ലങ്കിലും ഏത് രീതിയിലുള്ള കളികളാണങ്കിലും അവൻ്റെ ശാരീരിക ക്ഷമത അവിടെ കൂടുകയാണ് അങ്ങനെ അവൻ്റെ ശരീരം കൂടുതൽ ഫിറ്റാകുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ മനസിനും അത് തീർച്ചയായിട്ടും പ്രയോജനം ലഭിക്കും അവന് പഠിക്കാൻ കൂടുതല് താൽപ്പര്യം വരും അവന് ജോലി ചെയ്യാനായിട്ട് അതിന് ജോലിയുള്ളവനാണെങ്കിൽ ജോലി ചെയ്യാനായിട്ട് കൂടുതൽ താൽപ്പര്യം വരും അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് ഇടപഴകാനൊക്കെയുള്ള പിന്നെ കൂടുതല് ഇട വരും അപ്പോള് അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും കളികൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അത് നിത്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർച്ചയായിട്ടും മാറണം ആ ഒരു രീതിയിലേക്ക് പിന്നെ നമ്മുടെ പഠനത്തോടൊപ്പം നമ്മുടെ ജോലിയോടൊപ്പം കളികൾക്കുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോവാം ആ ഒരു രീതിയിലേക്കു ശ്രമിക്കാം